ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ കണ്ടുവരുന്നത് മലയാള ഭാഷ തന്നെയാണ് എന്നാലും ഇടയ്ക്കൊക്കെ എന്താ പറയുക ആളുകൾ ചില കമ്പനി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാലും കൂടുതലും ആളുകൾ നമുക്കിപ്പോൾ കോഴിക്കോട് ജില്ലയിലൊക്കെ കണ്ടുവരുന്ന മലയാളം തന്നെയാണ് മലയാളഭാഷയാണ് അവരെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്തേക്കും കാര്യങ്ങൾക്കൊക്കെ അതായത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പോലെയുള്ള അന്യ സ രാജ്യങ്ങളുടെ ഭാഷ പഠിക്കുകയും അതിനുശേഷം പുറത്തേക്കു പോകാനുള്ള അവിടെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നവരും ഉണ്ട് കാരണം പുറത്തേക്കൊക്കെ പോയിക്കഴിഞ്ഞുക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ കിട്ടുന്നതിനേക്കാളും നല്ല സാലറി ബേസ് ഒക്കെ പുറത്തേക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അവസരങ്ങളൊക്കെ വന്നോടുകൂടി ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ടും മറ്റു ലാംഗ്വേജുകളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പോൾ എന്താ പറയുക നമ്മുടെ സംസ്ഥാനത്തെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആളുകൾ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ കൂടുതലും മലയാള ഭാഷ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മറ്റ് ഭാഷകളും പഠിക്കാനും ഇപ്പോഴും ആൾക്കാരുണ്ട് കാരണം പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എല്ലാവരും ജർമ്മൻ ലാംഗ്വേജ് പോലെയുള്ള ലാംഗ്വേജുകളൊക്കെ പഠിച്ച് പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്